എടാ റോബിൻ നീ എവിടെയാട ഒ ഫുട് ബോൾ കളിക്കാനല്ലെ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അതേ ഷൂ ഒന്നു പൊട്ടിയായിരുന്നു അപ്പോൾ ആലപ്പുഴയ്ക്ക് പോയത് വാങ്ങിക്കാൻ വേണ്ടി ഞാനിതു വാങ്ങിച്ച് ഇപ്പോൾ വന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പെത്തും ഒരഞ്ച് മിനിറ്റ് ഓൺ ദ വേ ആണ് കളി കണ്ട് കളി കണ്ട് അല്ല ക്ലൈം ഡിഫൻസാണ് ആ ആ ഡിഫൻസ് കുഴപ്പമില്ലായിരുന്നെടാ എന്നാലും ഡിഫൻസും കൂടെ ബെറ്ററായിരുന്നെങ്കിൽ മ് മ് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്റ്റേഡിയം നമ്മൾ മ് സ്റ്റേഡിയം ഒന്നും പഴയ പോലെയൊന്നും അല്ലല്ലോ സ്റ്റേഡിയമൊക്കെ വളരെ മോശം തന്നെ മ് അതെ വിദേശികളൊക്കെ നമ്മളെ മ് അതെ വിദേശികൾ കാണുന്നുണ്ട് നമ്മൾ ഇതിനെ കുറിച്ചേ നമുക്കു തന്നെ പുറത്തു പോകാൻ നമുക്ക് നാണക്കേടാണ് മ് അതെ അതെ പിന്നെ ഈ നമ്മളുടെ താരങ്ങളും അതനുസരിച്ച് വളരെ ടയേഡായിക്കൊണ്ടിരിക്കുകയാണ് അവർ പുറത്തോട്ട് പോകാനുള്ള നമ്മളുടെ കേരളം നശിപ്പിക്കാനാണ് നമ്മുടെ സ്പോട്സ് കൗൺസിലൊക്കെ ചെയ്യുന്നത് അതേ അതെ അതെ അതെ അതെ അതെ മ് മ് അ അതെ ഫുട് ബോളിനെ തന്നെ നശിപ്പിക്കുകയെന്നുള്ളതാണ് ഇവർ കൂടുതൽ ക്രിക്കറ്റിനെ ഫോക്കസ് ചെയ്യുന്നുമുണ്ട് ഫുട് ബോൾ അതേ ഇടയ്ക്കൊന്ന് നൂറ്റിപ്പതിനാല് അത്ര അത്ര ഉണ്ടായതല്ലേ ഇൻഡ്യ മ് മ് ഐ എസ് എല്ലിലൊക്കെ ഐ എസ് എല്ലിലൊക്കെ നമ്മുടെ മലപ്പുറത്തുള്ള പിള്ളേരും കോഴിക്കോടുള്ള പിള്ളേരെല്ലാം ക്ലിക്കായി ക്ലിക്കായി വന്നതാണ് അപ്പോൾ അവരും ഈ എന്തോന്ന് അതെ നമ്മുടെ പ്ലയേർസിനെ മ് നമ്മുടെ പ്ലയേസിനെ അവർ നോർത്ത് ഇൻഡ്യൻസ് ക്ലബ്ബുകളെല്ലാം കൊണ്ടു പോകുന്നതൊക്കെയാണ് ന മുക്കീ പ്രശ്നം കേരളത്തിൽ ഇപ്പം ജിങ്കാൻ തന്നെ പോയില്ലേ തലേന്ന് മ് മ് നമ്മൾ കീ പ്ലെയറായിട്ട് വെച്ചു കൊണ്ടിരുന്നതല്ലേ അ എത്തി ഞാൻ എത്തി മ് പുറകിൽ ഇരിക്കാം ഒരു മിനിറ്റ്

അ സെയിം അതെ പെനാൽറ്റീ മ് പെനാൽറ്റിയിൽ കയറിയത് മ് അതു പോലെ തോന്നി

സൗദിയിലല്ലേ അതു നടന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അ മ് സ്റ്റേഡിയമൊക്കെ മ് മ് ഇപ്പം തന്നെ ഇതൊക്കെ കണ്ടിട്ട് മെസ്സിയെ കേരളത്തിൽ കൊണ്ടു വരാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാന് അ നൂറ് കോടി മുടക്കി ഇവിടെ കൊണ്ടെന്നിട്ട് വേണം നമ്മുടെ ഐ എസ് എല്ലിന് പോലും എ ഐ എസ് എല്ലിന് പോലും ഒരു ഗ്രൗണ്ടില്ല പിന്നെ എന്തിനാണ് നമ്മളെ ഇത്രയും രൂപ മുടക്കി കൊണ്ടു വരുന്നതും ഫുട് ബോളിനെ നശിപ്പിക്കാൻ തന്നെ അല്ലാതെ ഒന്നുമല്ല അ അ മ്

എന്തുവായാലും ഫുട് ബോൾ രക്ഷപ്പെടും നമ്മൾ പുതുതലമുറയും രക്ഷപ്പെടും ഓക്കെ മ് ഓ ഞാൻ എത്തി ഇങ്ങ് പോര് മ്